അഭിമാനകരമായ നേട്ടം അതായത് പറയണ എന്നു വെച്ചു കഴിഞ്ഞാൽ ഞാൻ പഠിത്തം കഴിഞ്ഞ് വല്ല്യ ജോലിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അത്യാവശ്യം കളിച്ച് നടന്ന് നടന്ന് നടന്ന് പിന്നെ നാട്ടുകാരും വീട്ടുകാരൊക്കെ പറഞ്ഞ് അങ്ങനെ എന്താ പറയുക ഒന്നിനും പറ്റില്ല അങ്ങനെ ഉപകാരമില്ലാതെ കളിച്ചു നടക്കുന്നുണ്ട് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം നാട്ടുകാരൊക്കെ വീട്ടിൽ ചീത്തയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി വയസ് പിന്നേയും കൂടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അതായത് ഞാൻ പഠിച്ചത് ബന്ധപ്പെട്ടല്ല പക്ഷേ എന്നാലും നല്ലൊരു ജോലി സ്വന്തമായിട്ട് തന്നെ ഒരാളുടെ കാലോ അല്ലെങ്കിൽ ഒരാളുടെ ഉപകാരമോ ഇല്ലാണ്ട് സ്വന്തമായിട്ടുതന്നെ നല്ലൊരു ജോലി എനിക്ക് സമ്പാദിക്കാൻ പറ്റി അതിന് എനിക്ക് ഒരു നല്ല അഭിമാനം ഉണ്ട് ഞാൻ സ്വന്തമായിട്ട് അതായത് പഠിച്ചത് ആണോയെന്ന് ചോദിച്ചാൽ പഠിച്ചതല്ല എങ്കിലും നല്ലൊരു രീതിയിലുള്ള ജോലിയാണ് എനിക്ക് സമ്പാദിക്കാൻ പറ്റിയത് അപ്പം ആ ജോലിയും വരുമാനം കാര്യങ്ങളുമുള്ളതുകൊണ്ട് ഇപ്പം അത്യാവശ്യം എന്റെ ലോണും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ അടക്കുന്നുണ്ട് ഒരു വീടിന്റെ പണി പകുതിയായിട്ടുണ്ട് ഇപ്പം ഇതാ പെങ്ങളുടെ കല്യാണം കഴിച്ചു കൊടുത്തു അങ്ങനെ എന്തു കൊണ്ടും എനിക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടം അത് തന്നെയാണ് രണ്ടാ മെ എന്താ പ്രശ്നം കാര്യം വച്ചു കഴിഞ്ഞാൽ ഒന്ന് പഠിച്ച ഫീൽഡിൽ ജോലി നോക്കി കിട്ടിയില്ല പക്ഷേ കിട്ടിയ ജോലി എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടു തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക നന്നായി ചെയ്യാനും പറ്റുന്നുണ്ട്